കൃഷി മനുഷ്യന് അത്യന്താപേക്ഷിതമാണ് ജീവിക്കണമെങ്കിൽ കൃഷി അത്യന്താപേക്ഷിതമാണ് ഭക്ഷിക്കാതെ മനുഷ്യന്റെ പ്രാഥമികമായ ആവശ്യമാണ് ആഹാരം എന്നുള്ളത് ആഹാരം ഉണ്ടാക്കുന്നത് കർഷകനാണ് കാലങ്ങൾക്ക് മുമ്പ് ഉള്ള കൃഷി രീതി ഇന്ന് സാധിക്കില്ല കാരണം നമ്മുടെ നാട്ടിൽ അതായത് ഇന്ത്യയിൽ നമ്മൾ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് വെറും നാലപ്ത് കോടി മനുഷ്യരായിരുന്നു അവർക്ക് അന്ന് കയിക്കാനുള്ള ആഹാരം ഇവിടെ ഉത്പാദിപ്പിച്ചിരുന്നില്ല നമ്മൾ വിദേശ രാജ്യങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത് ഇന്ന് നമ്മൾ ഇരട്ടി അല്ല മൂന്നിരട്ടി ആയി അപ്പോൾ അതുകൊണ്ട് കൃഷിയും അതുപോലെ മാറേണ്ടിയിരിക്കുന്നു അതിന് നമ്മൾ സയൻസിന്റെ പിൻബലവും അതുപോലെ എൻജിനീയറും കണക്കും ശാസ്ത്രങ്ങളുമെല്ലാം നമ്മൾ കൂടെ പിടിച്ചാൽ മാത്രമേ നമ്മൾ ഈ അഭിവൃദ്ധി കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ മുന്തിയ ഇനം വിത്തുകളും അതുമല്ല കാര്ഷിക ട്രാക്ടര് മുതലായ പണ്ട് നമ്മൾ കാളയെ പൂട്ടിയാണ് നമ്മൾ ഉഴുതു മറിച്ചു കൊണ്ടിരുന്നത് നിലം ഒരുക്കിയിരുന്നത് മാത്രമല്ല ചെറിയ ചെറിയ ഘടകങ്ങള് ആയിരുന്നു ഓരോ ചെറിയ ചെറിയ യൂണിറ്റുകളായിരുന്നു അങ്ങനെ ചെറിയ യൂണിറ്റ് വരുമ്പം നഷ്ടം സംഭവിക്കും നമുക്ക് ലാഭം കുറവായിരിക്കും വരുമാനം കുറവായിരിക്കും അപ്പം അതുകൊണ്ട് ഇന്ന് ക്ലസ്റ്റർ രൂപത്തിലുള്ള വലിയ പാട ശേഖരങ്ങൾ ട്രാക്ടർ ഉപയോഗിച്ച് ചുരുങ്ങിയ ചിലവിൽ നമ്മൾ കാർഷിക വിളകൾ നടാനും അതും അല്ല നടുന്നതിനും നിലം ഒരുക്കുന്നതിനും സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉയര്ന്ന തരം വിത്തുകള് ഉപയോഗിച്ച് അതുപോലെ തന്നെ വിള കൂടുതലായി രണ്ടും മൂന്നും നാലും അഞ്ചും എരട്ടി ആയി വളർത്തിയെടുത്താൽ മാത്രമേ ഇന്ന് ചുരുങ്ങിയ ചെലവിൽ കൂടുതൽ ഫലം കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ തീർച്ചയായിട്ടും പണ്ടത്തെക്കാൾ ഉപരിയായിട്ട് ഒത്തിരി ഗുണമേന്മയുള്ള നല്ല ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് നാം ഉപയോഗിക്കുന്നതോടൊപ്പം നമുക്ക് വിപണനം ചെയ്യാനും ഇത് സഹായിക്കുന്നു